അതെ ആ ഇവിടെ ഉണ്ടാവും ആ എപ്പൊഴത്തേക്കാണ് നിങ്ങൾ ആ ആ എപ്പൊഴത്തേക്കാണ് ആ ഉണ്ടാവും ഉണ്ടാവും

വേണ്ട ഇവിടെ വന്നാൽ മതി നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും ആ അത് പ്രശ്നമാണ് ആ ഉണ്ടാവും ആ അതെ അതെ ആ ഉണ്ടാവും ആ കല്ലുമ്മക്കായ ചെമ്മീൻ ഐക്കൂറ ആവോലി ഞണ്ട് ഉണ്ടാവും കരിമീൻ ഇവിടെ അങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ല പിന്നെ ആലപ്പുഴ ആ ഒരു ഏരിയേന്ന് നോക്കിയ അവിടെ റെസ്റ്റോറൻറ്റിന്ന് കിട്ടും ഇല്ല ഇല്ല ആ ആ അങ്ങനെ ചെയ്തു തരും ഓ വാങ്ങാമല്ലോ ആ ആ അതൊക്കെ പറ്റും ഫൈവ്ഹൺഡ്രഡ് കിലോ ആ അങ്ങനേണ് ഫുൾ ആയിട്ടും ഹാഫ് ആയിട്ടും തരുന്നുണ്ട് ഫൈവ് ഹൺഡ്രഡ് ഹാഫിനാകുമ്പോൾ ടുഹൺഡ്രഡ് ടുഹൺഡ്രഡ് ഫിഫ്റ്റി ഒക്കെ വരും ആ എല്ലാ എല്ലാം ഉണ്ടാവും നിങ്ങൾ പറയൂ നിങ്ങളുടെ ഇഷ്ടം പോലെ ഉള്ളത് ആ ചെയ്ത് തരും ഓ അതും തരും പൊറോട്ട ഉണ്ട് നാൻ ഉണ്ട് ചപ്പാത്തി ഉണ്ട് വേണ്ട വേണ്ട ഇവിടെ ഉണ്ടാവും ആ ഓക്കെ ആ ഓക്കെ ഓക്കെ